കേരളത്തിലെ കാലാവസ്ഥയെന്നു പറഞ്ഞാൽ വെയിലും മഴയും ഇങ്ങനെ രണ്ട് കാലാവസ്ഥയേയുള്ളൂ ചെടികൾക്കൊക്കെ അപ്പോൾ വെയിൽ കൊള്ളണ വെയിൽ കൊണ്ടാൽ പോകണ ചെടി വെയിൽ കൊള്ളാത്തിടത്തേക്ക് എടുത്തു വെക്കും മഴ പെയ്തു കൊണ്ട് മഴക്കാലമാകുമ്പോൾ മഴ പെയ്താണ്ട് മഴകൊണ്ട് ചീഞ്ഞുപോകണ ചെടി മഴ കൊള്ളാതെ വെക്കും അങ്ങനെയൊക്കെയല്ലെ രണ്ട് കാലാവസ്ഥയല്ലെ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഊട്ടിക്കു പോയപ്പോൾ ഒരു ദിവസം ചെടി മാങ്ങി പോന്നിട്ട് അതിങ്ങനെ വാടിപ്പോകണ സാഹചര്യം വന്നപ്പോൾ ഐസ് ക്യൂബ് ഇട്ടുകൊടുത്തു കൊണ്ട് പിന്നെ അപ്പം അത് ഉഷാറായി വന്നു പിന്നെ ടാലിയാ അങ്ങനെയൊക്കെയുള്ള വള്ളിച്ചെടിയൊക്കെയല്ലേ അതു നമ്മൾ ഒരു കമ്പൊക്കെ കുത്തി റെഡിയാക്കി നിർത്തും അപ്പോൾ ഉഷാറാകും പിന്നെപ്പെന്താ മണി പ്ലാൻറ്റ് അത് നമ്മൾ അകത്ത് വെക്കണ ആണെങ്കിൽ അത് രണ്ടാഴ്ച കൂടുമ്പോൾ വെയിലത്തുണ്ടാച്ങ്ങാണ്ട് അങ്ങനെ വെയിൽ കൊള്ളിച്ങ്ങാണ്ട് കൊണ്ടു വന്നു വെക്കും പിന്നെ അകത്ത് വെക്കണ ചെടികളങ്ങനെ അങ്ങനെ അല്ല അകത്ത് വെക്കണ എല്ലാ ചെടികളും അങ്ങനെതന്നെ കാട്ട രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഒന്ന് ഇടക്ക് വെയിൽ കൊള്ളിച്ങ്ങാണ്ട് എടുത്തു കൊണ്ടു വന്നു വെക്കും പിന്നെ ജമന്തി അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ പിന്നെ എത്രയും വെയിൽ കൊണ്ടാലും പിന്നെ കുഴപ്പമില്ല പിന്നെ ഉച്ചക്ക് വെയിൽ ശരിക്കിനും തട്ടിക്കോട്ടേ വിചാരിച്ച് നമ്മൾ വീടിന് പറബോള കെട്ടണ അതിൻ്റെ നേരെ ചുവട്ടിൽ കൊണ്ടു വന്നു വെക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കണത് പിന്നെ ഇപ്പോൾ എന്താ പിന്നെ റോസ് റോസാപ്പൂവ് അങ്ങനത്തതിനൊക്കെ പിന്നെത്ര വെയിലായാലും മഴായാലും രണ്ട് കാലാവസ്ഥയും പോകും അപ്പം അതൊക്കെ പിന്നെ മുറ്റത്തു തന്നെ അങ്ങനെ ഉണ്ടാക്കിച്ചണ പിന്നെ